ഹലോ ആരാണ് വിളിക്കുന്നത് ആ പറഞ്ഞോളൂ ആ

പിന്നെ വിത്ത് എല്ലാത്തിൻ്റെയും വിത്ത് നമുക്ക് വന്നിട്ടുണ്ട് പുതിയ ഇനം വന്നിട്ടുണ്ട് എല്ലാം വന്നിട്ടുണ്ട് എന്തിനാണ് എന്നാ എന്നാത്തിനാണ് എന്നാക്കെ വിത്തുകളാണ് വേണ്ടിയത്

ആ ഗാ ആ ഒക്കെ ഒക്കെ നിങ്ങൾ പിന്നെ ഇറങ്ങ് ഇങ്ങോട്ട് പലതരത്തിലുള്ള വിത്തുകളുണ്ട് മരുന്നെലൊക്കെ മുക്കിയതുണ്ട് പെട്ടന്ന് കേടൊന്നും വരാത്ത നല്ലയിനം ഫ്രഷായിട്ടുള്ള വിത്തുകളാണ് നമ്മടെലൊക്കെ ഉള്ളത് അപ്പം നമ്മളെപ്പോഴും നല്ല വിത്ത് ആ ആ അതുകൊണ്ട് ആ ആ അപ്പം നല്ല അതുകൊണ്ടാണ് ഞങ്ങളീ എന്നും ഞങ്ങളെ സമീപിക്കുന്നവർക്ക് വേണ്ടി വിത്തുകളൊക്കെ ഞങ്ങൾ ചിലതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് നല്ല വിത്ത് ഇട്ടാലല്ലേ നമുക്ക് നല്ല ഫ നല്ല ഫലം കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെത്തെയുള്ള നല്ല വിത്തുകളും ആ അതുകൊണ്ട് നല്ല ആ ആ അപ്പം നമ്മളാ ആ അത്രയും നമ്മൾ കേടൊക്കെ മാറ്റി എല്ലാം നല്ലതായിട്ടുള്ള എല്ലാം തിരെ എല്ലാം വേർതിരിച്ചെല്ലാം വെച്ചിട്ടും വിത്തൊക്കെ ഞങ്ങളെടുത്ത് കൊണ്ടുന്ന സമയമാണിപ്പോൾ വരുവാണെങ്കിൽ നല്ലത് നോക്കി എല്ലാം ത തരാനും പറ്റും കേട്ടോ ഓ ആ ആ സാഹചര്യം ആ ആ ആ ആ

ആ ആ ആ ആ ആ അപ്പോൾ പോര് കേട്ടോ ആ ആ പിന്നെ കാര്യങ്ങളൊക്കെ അറിയാം ആ അപ്പോൾ ആ ആ ആ ഉണ്ടുണ്ട് അപ്പോൾ നിങ്ങൾ പിന്നെ എപ്പോഴത്തേന് വരും നമ്മൾ എന്നാത്തിൻ്റെയൊക്കെ വിത്തൊക്കെ വേണമെന്ന് ഒന്ന് പറയുവായിരുന്നെങ്കിലെ ഞങ്ങളതീന്ന് നല്ലത് നോക്കി എടുത്ത് വെക്കാമായിന്നു ആ നെല്ലിൻ്റെ വേണം ആ പ പയറോ ആ ആ ആ ആ ആ ആ എന്തുമാത്രം ഉണ്ട് സ്ഥലമൊക്കെ ഒത്തിരിയുണ്ടോ നമ്മൾ വിത്ത് എന്തുമാത്രം ഓരോന്നും എടുക്കണം ഉണ്ടോ സ്ഥലമുണ്ട് ആ ആ അപ്പോൾ ആ ആ അപ്പോൾ അതനുസരിച്ചുള്ള കൊള്ളത്തക്ക രീതിയിലുള്ള വിത്തുകളെല്ലാം എടുക്കണം അല്ലേ ആ ആ ആ ആ ആ ആ ആ

ആ ആ ഹാ ഹാ ഹാ ആ ആ ആ ആ ആ ആ ആന്നന്നെ നമ്മളെല്ലാം അങ്ങനെ നോക്കിയെ കൊടുക്കത്തുള്ളൂ മനുഷ്യർ പൈസ കൊടുത്ത് നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ നാളെ നമുക്ക് വേണ്ടേ നിങ്ങൾ അതുകൊണ്ടല്ലേ നിങ്ങളിപ്പോൾ എന്നെ വിളിച്ചത് അതുപോലെ നാളെ നമുക്ക് വേണ്ട അതുകൊണ്ട് നമ്മൾ നല്ല വിത്തുകൾ മാത്രമേ കൊടുക്കത്തുള്ളൂ മരുന്നിനാത്തൊക്കെ മുക്കി നമ്മൾ ഫ്രഷായിട്ടുള്ള ചീഞ്ഞതൊ അളിഞ്ഞതൊ അങ്ങനത്തുള്ള ഒന്നും കൊടുക്കത്തില്ല നല്ല ഫലം കിട്ടണത് എല്ലാം വാങ്ങിച്ചോണ്ട് പോകുന്നവർക്കൊക്കെ നല്ല ഫലം കിട്ടണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം ആ അതുകൊണ്ടാണ് നമ്മൾ ആ ആ ആ ആ ആ ആ ആ ഉണ്ട് ആ

ആ ആ വരും അപ്പോൾ അതു നല്ല ആ അതുകൊണ്ടും ഒത്തിരി പേരുണ്ട് ഇതുപോലെ നമ്മളെ വിശ്വാസിച്ച് വിശ്വാസമുള്ള ഒത്തിരി പേരുണ്ട് കേട്ടോ അവരൊത്തിരി പേര് നമ്മളടുത്തു വരുന്നുണ്ട് വിത്തു മേടിക്കാനായിട്ടൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട് വിശ്വാസം ആ അവർക്ക് നമ്മൾ നല്ല വിശ്വാസമാണ് ഞങ്ങളെ അതുകൊണ്ട് ആ ആ അപ്പോൾ ശരി എന്നാൽ പോര് കേട്ടോ പോര് ആ പോര് പോര് ആ ശരി പോര്